എൻ്റെ അടുക്കളയിൽ വിവിധതരം പാത്രങ്ങളുണ്ട് അത് ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണുള്ളത് അത് ഓരോന്നും ഓരോന്നായി പറയാണെങ്കില് ഓരോന്നും അതിൻ്റെ ഉപയോഗങ്ങളും പറയുവാണെങ്കില് അത് ഒരുപാട് പറയാനുണ്ട് ആദ്യമായിട്ട് വേണമെങ്കില് നമുക്ക് ചീനിച്ചട്ടി പറയാം ചീനിച്ചട്ടിയെന്ന് പറയുന്നത് നമുക്ക് ധാരാളം ഈ എണ്ണയൊക്കെ ഒഴിച്ച് പൊരിക്കാനും അങ്ങനെയുള്ള മീന് ഇറച്ചി അങ്ങനുള്ള കാര്യങ്ങളൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ചീനിച്ചട്ടി സാധാരണയായി ഉപയോഗിക്കുന്നത് അപ്പോള് ചീനിച്ചട്ടിയിൽത്തന്നെ അതിൻ്റെ കൂടെത്തന്നെ ഇത് ഒക്കെ ഇളക്കാന് വേണ്ടിയിട്ടുള്ള തവികളും ഒക്കെ നമ്മുടെ അടുക്കളയില്ത്തന്നെ ഉള്ള ഒരു സംഭവമാണ് അപ്പോള് ചീനിച്ചട്ടിയാണ് ആദ്യമായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയാനുള്ളത് പുട്ടുകുറ്റിയാണ് പുട്ടുകുറ്റി നമുക്ക് പുട്ട് ഉണ്ടാക്കാന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ അരിമാവു കൊണ്ടും റവമാവുകൊണ്ടും ഒക്കെയാണ് പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോള് അത് ഉണ്ടാക്കിയ അതിൻ്റെ ആ അച്ചുപോലെ ഇരിക്കുന്ന അച്ചുപോലെ നമുക്ക് പുട്ടിനെ കിട്ടാറുണ്ട് അപ്പോള് ആ അച്ചിനുവേണ്ടിയിട്ടാണ് നമ്മള് പുട്ടുകുറ്റി ഉപയോഗിക്കുന്നത് അത് പുട്ടുകുറ്റിയിൽത്തന്നെ അതിൻ്റെ കൂടെത്തന്നെ കുടം ഉണ്ട് ആ കുടത്തിൽ നമ്മള് വെള്ളം നിറച്ചുവച്ചിട്ടാണ് അതിൽ ആവി കയറ്റിയാണ് നമ്മള് പുട്ട് വേവിച്ചെടുക്കുന്നത് അതാണ് അതിനെ പുട്ടുകുറ്റി എന്നു പറയാൻ കാരണം അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഇഡ്ഡലി കുട്ടുകമാണ് ഇഡ്ഡലി കുട്ടികം നമ്മള് ഉപയോഗിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് അതിലെ തന്നെ ഇഡ്ഡലി കുട്ടുകത്തിന് അകത്തുതന്നെ അച്ചുപോലത്തെ സംഭവം ഉണ്ട് അതില് നമ്മള് മാവ് അരിമാവ് ഒഴിച്ചുകൊടുത്ത് ഇഡ്ഡലി അച്ചുപോലെ ഉണ്ടാക്കിയിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതിനും താഴെ ആ പാത്രത്തിൽത്തന്നെ വെള്ളം ശേഖരിക്കാന് അത് ചൂടാക്കി ഈ അച്ചിലുള്ള നമ്മള് വെച്ചേക്കുന്ന ഇഡ്ഡലിമാവ് ചൂടായി അത് നല്ലവണ്ണം വെന്തുവരാനും നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇടിയപ്പം അച്ചുണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇടിയപ്പം അച്ച് ഉപയോഗിക്കുന്നത് അത് നൂലുപോലെ നല്ല നല്ല മൃദുവായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇടിയപ്പ അച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ ചരുവമുണ്ട് ചരുവം സാധാരണയായി ഉപയോഗിക്കുന്നത് വെള്ളം ചൂടാക്കാനും അങ്ങനുള്ള കാര്യത്തിനൊക്കെ ആണ് അത് നമുക്ക് വലിയ തരത്തിലുള്ള ചരുവങ്ങളും ഉണ്ട് ചെറിയ ചരുവങ്ങളും ഉണ്ട് ചെറിയ ചരുവം നമ്മള് കുടിവെള്ളം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെതന്നെ വലിയ ചരുവങ്ങള് വെള്ളം ചൂടാക്കി കുളിക്കേണ്ട ആവിശ്യമൊക്കെ വരുമ്പോള് നമ്മള് വലിയ ചരുവം വെച്ച് വെള്ളം ചൂടാക്കി കുളിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെതന്നെ ചില്ലുപാത്രങ്ങളുണ്ട് ചില്ലുപാത്രങ്ങൾ സാധാരണയായി നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോള് അവർക്ക് ഭക്ഷണം കൊടുക്കാന് വേണ്ടിയിട്ടാണ് ചില്ലുപാത്രങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെതന്നെ സ്റ്റീലിലുള്ള പാത്രങ്ങളുണ്ട് അത് നമ്മള് ദിനംതോറും നമ്മള് തന്നെ കഴിക്കുന്ന നമ്മള് ആഹാരം വിളമ്പിക്കഴിക്കുന്ന പാത്രങ്ങളാണ് സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ അടപ്പുള്ള പാത്രങ്ങളുണ്ട് നമ്മള് സാധാനങ്ങളൊക്കെ ഉണ്ടാക്കി അടച്ചിട്ട് ഭദ്രമാക്കി വയ്ക്കാനും വേറെ ജന്തുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചുവയ്ക്കാൻ വേണ്ടി അടപ്പുപാത്രങ്ങളുണ്ട് പിന്നെ എണ്ണപാത്രമുണ്ട് എണ്ണ ശേഖരിച്ച് വയ്ക്കാനുള്ള പാത്രങ്ങളുണ്ട് പിന്നെ ഭരണികളുണ്ട് ഭരണികള് നമ്മള് അച്ചാറുപോലുള്ള വസ്തുക്കളൊക്കെ ഇട്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഭരണികളും ഉണ്ട്